ഞാന് ഒര് സൈക്കിള് വേണമായിരുന്നു സൈക്കിള് നോക്കാൻ വന്നതാണ് ഞാൻ വലിയ ആ വലിയ കുട്ടിക്കാണ് അത് കുട്ടിയൊപ്പം വന്നിട്ടില്ല അപ്പോൾ സൈക്കിള് നോക്കാൻ വേണ്ടിയിട്ട് അവനൊര് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കാൻ വന്നതാണ് ഉം അപ്പോൾ ഏതാ മോഡല് മോഡലിപ്പം ഈ മോഡൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് കാണാനൊക്കെ നല്ല രസമുണ്ട് ഭംഗിയുണ്ട് പിന്നെ അതിന് വാ വാരണ്ടി എത്രയുണ്ട് എന്നൊക്കെ അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു എത്ര ആണ് ആ ഒര്മാ ഒര് മാസത്തെ വാരണ്ടിയൊക്കെ ഉണ്ടാവുകയുള്ളു അല്ലെ ആ അത് ശരി ഉണ്ടാവുകയുള്ളു ഈ ഒര് മോഡലല്ലാതെ വേറെ അധികം ഫീച്ചേഴ്സ് ഉള്ള വേറെ മോഡലുകള്

അല്ല ഈ ഒര് മോഡലിത് കൊണ്ട്പോയിട്ടിത് എന്തെങ്കിലും പ്രശ്നമൊക്കെ ആയി കഴിഞ്ഞാൽ ഒരാഴ്ച്ചേൻറ്റുള്ളിലൊക്കെ രണ്ട് മൂന്ന് ദിവസത്തിന്റെ ഉള്ളിലോ ഒരാഴ്ച്ചേന്റെ ഉള്ളിൽ ഒക്കെ ഇത് മാറ്റി കിട്ടുമോ

ഉം റെഡിയാക്കി അല്ല ഇതിന്റെ ഒരു ഇത് ഇപ്പം പെട്ടെന്ന് ഇപ്പം ഒന്ന് കേട് വരിക അങ്ങനെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സൈക്കിൾള്ള് കേട് വരിക അങ്ങനെ അതായതിപ്പൊ നമ്മള് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കമ്പ്ലൈൻറ്റ് വന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് പറഞ്ഞത് എന്താച്ചാ ഞാന് എനിക്കിതിനെ ഈ സൈക്കിൾൻ്റെ കാര്യത്തിനെ പറ്റീട്ടോ അതിൻ്റെ വാറണ്ടീനെ പറ്റീട്ടൊന്നും എനിക്ക് കൂടുതലറീല്ല ഞാൻ മോനൊര് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടീട്ടാണ് ഈ സൈക്കിള്

ആ അ ഉം ഉം ആ ഏതായാലും ഏതായാലും ഞാന് എന്തായാലും ഞാ ഒന്ന് ചോ മോനോടൊന്ന് ചോദിച്ചിട്ടേ അപ്പം സർപ്രൈസായിട്ട് മേടിച്ച് കൊടുക്കാനാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ ഇനി ഇപ്പോൾ അവൻ കണ്ടിട്ട് അവന്റെ ഇഷ്ടത്തിന് എങ്ങനെ ആണെന്ന് വെച്ചാല് മേടിക്കാം വരാ മോനെയും കൊണ്ടുവരാം വരാ ആ ആ ഈ ഏ നല്ല ബ്രാൻഡ് ആകണം നല്ല ബ്രാൻഡും ആകണം വാരണ്ടിയുള്ളതും ആവണം ബ്രാൻ്റഡ് സാധനമാണ് ഉപയോഗിക്കുന്നത് അത് കരുതിയിട്ടാണ് ഈ കടയിലേക്ക് തന്നെ വന്നത് ഉം

കൊണ്ട് വന്നതാണല്ലേ ഉം ഉം എന്നാൽ ഇനി മകൻ വന്നിട്ട് ഞങ്ങള് ഒരുമിച്ച് വരുന്നുണ്ട്